പല കാലാവസ്ഥകളിലും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു എന്താ പറയുക സംഭവമാണ് ഈ നമ്മുടെ വസ്ത്രം കഴുകുക അല്ലെങ്കിൽ അത് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് ഉള്ളത് മെയിനായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് മഴക്കാലത്താണ് മഴക്കാലത്ത് നമുക്ക് വസ്ത്രങ്ങൾ അലക്കാനോ അല്ലെങ്കിൽ കഴുകാനോ അത് കൃത്യമായി ഉണക്കി വെക്കാനോ ഉള്ളൊരു എന്താ പറയാ ഈ ഗ്രാമ പ്രദേശങ്ങളിൽ അതിന് കുറച്ച് അധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഗ്രാമപ്രദേശങ്ങളിൽ പൊതുവേ എല്ലാ ഭാഗത്തും ഇപ്പോൾ ടൗൺ ഏരിയ എല്ലാം നോക്കുകയാണെങ്കിലും ഈ മഴക്കാലത്ത് വസ്ത്രങ്ങൾ എന്താ പറയുക അലക്കി ഇടുക വൃത്തിയാക്കി വെക്കാൻ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ എത്രത്തോളം വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും എന്താ പറയുക അതിൽ അലക്കി ഇടാം അപ്പോൾ നമ്മൾ സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഒന്നുങ്കിൽ പുഴ അല്ലെങ്കിൽ കുളം അല്ലെങ്കിൽ വീട്ടിലെ കിണർ അങ്ങനത്തെ സംവിധാനങ്ങളെ ആശ്രയിച്ചാണ് മെയിനായിട്ട് നമ്മൾ തുണി അലക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടൗൺ ഏരിയകളിലാണ് കൂടുതലായിട്ടും ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് അതിൽ ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് ആകുമ്പോൾ വേനൽക്കാലത്ത് നമുക്ക് അത്ര പ്രശ്നം വരില്ല അത് നമ്മള് വെള്ളത്തോട് ഇട്ടാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും പക്ഷെ മഴക്കാലത്ത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാലും അത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി എടുത്താലും ഡ്രയറിൽ ഇട്ട് പകുതി അതായത് വെള്ളം വെടിഞ്ഞ് കിട്ടും പക്ഷെ പിന്നെയും അതിൽ എന്താ പറയുക ഈർപ്പം അല്ലെങ്കിൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഇത് പോയിട്ടുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് അതിനെ ഉണക്കി എടുക്കാൻ ഫാനിൻ്റെ അടിയിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടു വയ്ക്കേണ്ടി വരും